ഞാൻ പാലക്കാട് ജില്ലയിലാണ് താമസിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഏല്ലായിതും പച്ചപ്പ് ഒരു പണ്ടത്തെ ഒരു തറവാട് അങ്ങനെ കുറേ മനകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ എന്നാൽ ഞാൻ കുളപ്പള്ളിയിലാണ് കുളപ്പള്ളി ഏറ്റവും അടുത്ത് ഏറ്റവും വിനോദ സഞ്ചാരം എന്ന് തോന്നിക്കുന്നത് ഒരു മനയാണ് വരിക്കാശ്ശേരി മന ഇത് വാണിയം കുളത്താണ് സ്ഥിതി ചെയ്യുന്നത് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു വീടാണ് അതായത് പണ്ടത്തെ റൂമ് പണ്ടത്തെ അടുപ്പ് അവര് എങ്ങനെയാണ് അവരുടെ ശൗചാലയം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അവര് എങ്ങനെയാണ് ഫുഡ് പ്രിപേർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ അവിടെ ചെന്ന് നമുക്കത് കാണാൻ പറ്റും ഇപ്പോൾ ഓൾമോസ്റ്റ് അതായത് ഈ തറവാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരിക്കാശ്ശേരി മനയാണ് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് സിനിമകളൊക്കെ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത് പ്രേതം പ്രേതം ടു പറഞ്ഞ സിനിമ ഇങ്ങനെ മോഹൻലാൽ അങ്ങനെയൊക്കെ ഒരു തറവാട് ആ തറവാട് ആമ്പിയൻസ് അതുപോലെത്തന്നെ പണ്ടത്തെ ആമ്പിയൻസോക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വരിക്കാശ്ശേരി മന ഭയങ്കര ഒരു സ്യൂട്ടായ സ്ഥലമാണ് അതായത് അവിടെ ആനകളും ആനകളൊക്കെ ഉള്ള ഒരു തമ്പ്രാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന എന്ന് പറഞ്ഞാല് അവിടെ കുറെ കുറേ ആൾക്കാര് പല സ്ഥലത്ത് നിന്നും ആൾക്കാര് കാണാൻ വരും പക്ഷേ എന്നാൽ കുറച്ച്കൂടി അതിന് എന്താണ് പ്രചാര പ്രചാരണം വേണം കാരണം കൂടുതൽ ആളുകൾക്കും അറിയില്ല വരിക്കാശ്ശേരി മന എങ്ങനെയാണ് ഉണ്ട് എന്ന് തന്നെ അറിയില്ല അതെങ്ങനെയാണ് ഉണ്ടായത് എവിടെ നിന്നാണ് സിനിമ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കും പോലും അത് സുപരിചിതമല്ല നമ്മളൊന്നും കൂടി അതിന് അഡ്വട്ടയിസ്മെൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രചരിപ്പിക്കണം അതുപോലെത്തന്നെ ഓൺലൈനിൽ ഒക്കെ നമ്മൾ അതിനെക്കുറിച്ച് വരിക്കാശ്ശേരി മനയെക്കുറിച്ച് പറഞ്ഞ് മാത്രമല്ല അവിടെ ഒരു തനി നാടൻ പണ്ടത്തെ ഒരു ആമ്പിയൻസാണ് തരുന്നത് ആ തട്ടുമ്പുറം ഒക്കെ ഉള്ള ഒരു റൂമ് ഫാനില്ല ലൈറ്റില്ല ഒന്നുമില്ല നമ്മൾ പണ്ടെങ്ങനെയാണോ ജീവിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഒരു കുളം കുളത്തിൽ നിന്ന് കുളിക്കുന്നു നമ്മൾ ഇന്നത്തെ ശൗചയലമല്ല അന്നത്തെ ശൗചലയം അവരുടെ സൗകര്യങ്ങൾ ഇന്ന് എ സിയുണ്ട് പല കാര്യങ്ങളുമുണ്ട് പക്ഷേ അന്ന് ആ കാലത്ത് അതൊന്നും ഇല്ല അങ്ങനത്തെ ഒരാമ്പിയൻസ് തരുന്ന നല്ല ഒരു തനിനാടൻ തറവാടൻ ആമ്പിയൻസ് മന മന എന്നാണ് അതിന് പറയുന്നത് അങ്ങനെ ഒരു ആമ്പിയൻസ് തരുന്നതാണ് വരിക്കാശേരി മന അവിടത്തെ ആകർഷണം എന്ന് പറഞ്ഞാൽ ആ ഒരു വീട് ആ ഒരു വീടിൻ്റെ ചുമരിലുള്ള കൊത്തുപണികൾ അതിൻ്റെ സ്റ്റെപ്പ്സ് അതുപോലെതന്നെ അതിൻ്റെ തട്ടിമ്പുറം അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ ഉള്ള ഓരോ കാര്യങ്ങളും അവിടെ ഒരു കുളമുണ്ട് ആ കുളം അടക്കം ഒരു വരിക്കാശ്ശേരി മനയെ ആകർഷിക്കുന്നുണ്ട് അങ്ങനെ ആ ഈ ഒക്കെ ഒരു ഹൈലൈറ്റ് പോയിൻ്റൊക്കെയാണ് അവിടെ ആകർഷിക്കുന്നത് അവിടെ ഫ്രണ്ടിൽ തന്നെ അവിടെ നമ്മളുടെ മണ്ണ് പണ്ടൊക്കെ മണ്ണ് കൊണ്ടൊക്കെ വച്ചിട്ടാണ് നമ്മള് തറയില് ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ഒരു വേറെ ഒരു തരത്തിലാണ് അവരുടെ ചുമരുകൾ ചിത്രം കൊത്തിവച്ച് അത് വരച്ച് വച്ചിട്ടൊക്കെയാണ് അവിടത്തെ ആമ്പിയൻസ് അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയൊക്കെ ചെയ്യും അത് ആ ഒരു വരിക്കാശ്ശേരി മന കൂടുതൽകൂടി വിനോദ സഞ്ചാരമായി പ്രചരിപ്പിക്കണം എന്ന് ഉണ്ട്